ഹലോ യൂബർ അല്ലെ ഓക്കേ ഓക്കേ എനിക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു മൂന്ന് നാല് ദിവസത്തേക്ക് ആണ് എറണാകുളത്തേക്ക് ആയിരുന്നു അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് കുറച്ചു ഏരിയകൾ കൂടി കവർ ചെയ്തിട്ടു വേണം പോകാൻ നിങ്ങൾക്ക് എത്ര റേറ്റ് വരുമെന്ന് ഒക്കെ പറയുമായിരുന്നു എങ്കിൽ ഗുണമായിരുന്നു ഓക്കേ ഓക്കേ ഓക്കേ അതുപോലെ തന്നെ വണ്ടിക്ക് എസി ഉണ്ടോ ടിവി ഉണ്ടോ ഫാൻ ഉണ്ടോ ഓക്കേ ഓക്കേ പാട്ട് വെക്കാൻ ഒക്കെ സൗകര്യമില്ലേ സീറ്റ് ഫൂട്ട് ബാക്ക് ഉണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ എത്ര മണിക്ക് വരുന്നു എന്ന് പറയാമോ ഇന്ന് വൈകുന്നേരം പോകണം എൻ്റെ സ്ഥലം മാനന്തവാടി ആണ് മലബാർ ബാക്സ്ൻ്റെ ഫ്രണ്ടിൽ നിൽക്കാം ഓക്കേ ഓക്കേ ടൈം അഞ്ച് മണിക്ക് എത്തുവേലെ ഷാർപ് അഞ്ച് മണിക്ക് എത്തുവാണെങ്കിൽ ഞങ്ങൾ അവിടെ കറക്റ്റ് അഞ്ച് മണിക്ക് ഉണ്ടാകും വണ്ടിക്ക് എത്ര സീറ്റ് ഉണ്ട് ഓക്കേ ഓക്കേ സെവൻ സീറ്റ് ഓക്കേ ഓക്കേ ശരി റേറ്റ് ട്വന്റി തൗസൻഡ് ഓക്കേ ഓക്കേ ഓക്കേ ഷാർപ് അഞ്ച് മണിക്ക് ഓക്കേ ശരി